ഡസ്റ്റ് ബിന്നെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് ബിൻ ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് പിന്നെ നല്ല മെറ്റീരിയല് പ്ലാസ്റ്റിക്ക് സൂപ്പർ മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറും ഇഷ്ടമാണ് നമുക്ക് വേസ്റ്റ് ഇടാൻ വേസ്റ്റ് ഇടാമെന്നുള്ളതിനെക്കാളും വളരെ കാണുമ്പം തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നും വളരെ നല്ല പ്രൊഡക്ട് നല്ല പ്രൊഡക്ടാണത് പിന്നെ എനിക്കെന്തായാലും ഇഷ്ടമായി കാരണം നമുക്കിതിൽ വേസ്റ്റൊന്നും പുറത്ത് പോകാതെ അതിൽ നിക്ഷേപിക്കാനും പറ്റും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ പ്രൊഡകടും നല്ല പ്രൊഡക്ടാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്ക് കൊണ്ടുള്ള വേസ്റ്റ് ബാസ്കറ്റാണ്